പക്ഷി നിരീക്ഷണ സാഹസതകളെന്നു വെക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ബേർഡ്സിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിൽ അപ്പം എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒത്തിരി ലവ് ബേർഡ്സ് ഉണ്ട് തത്തയുണ്ട് അപ്പാണെങ്കിൽ ലവ് ബേർഡ്സിനെ നോക്കുന്ന ഞാനാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കുഞ്ഞുകൾ ഉണ്ടാകാൻ മുട്ട ഇട്ട് ഇങ്ങനെ കുടങ്ങളിൽ മുട്ടയിട്ട് വെച്ച ടൈമിൽ എനിക്ക് സംശയം ഇതിലേതാണ് അമ്മക്കിളി ഏതാണ് അപ്പങ്കിളി അപ്പം അത് കണ്ടു പിടിക്കാനായിട്ട് കുറേ ട്രൈ ചെയ്തു അപ്പാണെങ്കിൽ പിന്നെയാണെങ്കിൽ ഇവർ തമ്മിൽ എങ്ങനെ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതെന്നറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി അപ്പം എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ കിസ്സ് ചെയ്യില്ലേ ഞാൻ വെറുതെ ഓ കിസ്സ് ചെയ്യുന്നൊരു തമ്മിലാണ് അപ്പങ്കിളി അമ്മക്കിളിയും സോ പക്ഷേ അങ്ങനെയല്ലായിരുന്നു അറിയാന്നൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ല അപ്പങ്കിളിയും അമ്മക്കിളിയും അമ്മക്കിളിയുടെ ചുണ്ടിൻ്റെ അവിടെ നീല കളർ കാണും അല്ല അപ്പങ്കിളിയുടെ അമ്മക്കിളിക്കത് ഇല്ലായിരിക്കും അങ്ങനെയാണ് അവരെ അപ്പങ്കിളി അമ്മക്കിളിയായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് എനിക്കത് ഭയങ്കര കോമഡിയായിട്ടു തോന്നി